ഒമ്പത് മൂന്ന് രണ്ടായിരത്തി രണ്ട് മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനാല് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്